സംഗീതം ഇഷ്ടപെടാത്ത ആരും ഈ ലോകത്തിൽ തന്നെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല സംഗീതം അത്ര വളരെ നല്ലൊരു കലയാണ് പക്ഷേ ഞാന് മുമ്പ് പ്ര പ്രതീകരിച്ചത് പോലെ ഞാനും വളരെയധികം ഗാനം ഇഷ്ടപെടുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ പാട്ടുകളെല്ലാം ക്ലാസ്സിക്ക് സോങ്ങായാലും അതിലുള്ള പാട്ടുകളൊക്കെ ആണേലും എല്ലാം കേൾക്കാൻ താൽപ്പര്യവാണ് അതേപോലെ തന്നെ എനിക്ക് കിട്ടിയ ഒരു അനുഭവം എനിക്ക് കിട്ടിയൊരു ഭാഗ്യമനുസരിച്ച് ഞാന് ഞാനിപ്പോൾ ചെറിയ ഈതിയിലോക്കെ പാടാനക്കെ ശ്രമിക്കുകയും പാടുവൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ മക്കളുടെ കൂടെ വീ ഭവനങ്ങളിലെ പ്രാർഥനക്ക് ശേഷം പാടുന്ന പോലെ തന്നെ ഏതെങ്കിലും നമ്മൾ ഞങ്ങളുടെ ചടങ്ങുകളിലുവൊക്കെ അതുപോലെ തന്നെ വിവാഹം അല്ലെ മാമോദീസ അതുപോലെ വെഡിങ്ങ് ആനിവേഴ്സറി ഇങ്ങനെയുള്ള ഞങ്ങൾടെ ചടങ്ങുകളിലും അതുപോലെ പൊതുപരിപാടികളായിട്ടുള്ള ആ ഭാഗങ്ങളിലുവൊക്കെ ഞാനോഫീസിലയിരുന്ന കാലത്ത് അതിന് ശേഷം ഞങ്ങള് റിട്ടേർമെൻറ്റ് കഴിഞ്ഞ് റിട്ടേർമെൻറ്റ് ലൈഫില് ഞങ്ങളുടെ കൂട്ടായ്മകളൊക്കെയുണ്ട് അപ്പം ആ കൂട്ടായ്മകളിലൊക്കെ ഞങ്ങള് പങ്ക് കൊള്ളുമ്പോൾ അവിടെയും പല തര തരത്തിലും ഞങ്ങള് പല ഒരേ രീതിയിൽ ഒരുപോലെ ജോലി ചെയ്തെങ്കിലും പല മേഖലയിലാണല്ലോ പല തരത്തിലുള്ള സംസ്കാരത്തിൽ വളർന്നവരല്ലേ അപ്പം പല പല തരത്തിലുള്ള സംസ്കാരത്തിൽ വളർന്നവരുടെ ഒരു കൂട്ടമായി ഞങ്ങളുടെ വിശ്രമജീവിതം ഞങ്ങൾ സന്തോഷിക്കുമ്പോ ആഘോഷിക്കുമ്പോഴൊക്കെ അവരവരുടെ കലകളെല്ലാം അവിടെ ആവിഷ്ക്കരിക്കുന്നുണ്ട് അപ്പം അവിടെ ഗാനമാണ് എനിക്കും താൽപ്പര്യുള്ളത് ഞാനങ്ങനെ ഞാൻ ഗാനം ആസ്വദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ സ്വയമായിട്ട് പാടാനാഗ്രഹിക്കും ഞാൻ പാടുകയും ചെയ്യുന്നുണ്ട് ആ അങ്ങനുള്ള വേദികളിലും അങ്ങനെ പൊതുവായ വേദികളിലും എക്കെ എനിക്കിപ്പം ധൈര്യം ആയിട്ട് എനിക്കോരോ പാട്ടക്ക പാടാം പ്രേത്യേകിച്ച് സിനിമാ ഗാനങ്ങളാണ് കൂടുതലും പാടുന്നത് അതുപോലെ ക്രിസ്തീയ ഗാനങ്ങള് പാടുന്നതിലൊക്കെ താൽപ്പര്യമാണ് പാട്ട് പാടുക പാട്ട് ഞാൻ എന്ത് കൊണ്ടാണ് ഈ പാട്ടിനെ സ്വീകരിച്ചതെന്ന് ചോദിച്ചാല് തീർച്ചയായിട്ടും നമ്മളുടെ എല്ലാം എല്ലാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പല പല പല തരത്തിലുള്ള പ്രശ്ങ്ങളുണ്ടല്ലോ കുടുംബമാകുമ്പഴും കുടുംബമായി പിന്നെ ജീവിക്കുമ്പോഴുവൊക്കെ നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിലുവൊക്കെ പലതരം പ്രശ്നമുണ്ടാകും എന്നും ഒരേപോലെ സന്തോഷവായിരിക്കണമെന്നില്ല ചിലപ്പോൾ സങ്കടത്തിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മളുടെ നമ്മുടെ ഭാര്യ ഭർത്താക്കൻമാരുടെ ഇടപെടലുകളിൽ അതെ മക്കളുവായിട്ടുള്ള ഇടപെടലുകളിൽ ഒക്കെ തീർത്തും നമുക്കെല്ലാവർക്കും ഒരേപോലെ ഇന്നും ഒരു സന്തോഷത്തിൻ്റെ ഭാഗമുണ്ടാകണമെന്നില്ല അങ്ങനെ വരുന്ന ചില മേഖലകളിൽ ഒക്കെ അതുപോലെ മനസ്സ് കൊണ്ട് നമ്മള് പ്രയാസപ്പെടുന്ന ക കാര്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഏത് ഏറെ ഉന്മാദം തരുന്ന അല്ലെൽ നമ്മുടെ സങ്കടങ്ങള് മാറാൻ ഈ പാട്ടുകള് കേൾക്കുകയും അതുപോലെ പാട്ടുകള് പാടുകയും ചെയ്യും എന്നുള്ളത് നല്ലതാണ് ഞാനും കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഈ വാർത്തകള് കേൾക്കുകയും വാർത്തകള് ശ്രദ്ധിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഉപരി എനിക്ക് ഈ പാട്ടുകള് കേൾക്കുന്നത് താൽപ്പര്യമാണ് ഈ പാട്ടുകള് കേൾക്കുകയും ഞാനൊരു ഉച്ച പാട്ടുകളുടെ കൂടെ ഞാൻ പാടാനുവാഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയാണിപ്പം ഞാൻ ചെറിയ രീതിയിലൊക്കെ പല വേദികളിലും പാടാനെനിക്ക് ഒരു കഴിവ് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സംഗീതം എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏത് മേഖ രാജ്യത്തായാലും ഈ സംഗീതത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് ഏത് ഏത് കാര്യങ്ങളായിലായാലും വളരെയേറെ പോപ്പുലറായിട്ടുള്ള ഒരു കലയാണ് ഈ മ്യൂസിക്കെന്ന് പറയുന്നത് ഏത് പരിപാടികളിലും സ്കൂളുകളിലായാലും കോളേജുകളിലായാലും അതുപോലുള്ള മതപരമായ ചടങ്ങുകളിലായാലും അവരുടെ അയൽക്കൂട്ടങ്ങളായാലും അതുപോലുള്ള ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തായാലും എല്ലാ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്ന എല്ലാ പൊതുവേദികളിലും പ്രധാനമായിട്ടും നമ്മളീ ഗാനത്തെ ഉൾക്കൊള്ളുന്നത് ൻ്റെ ഒരു ഘടകം എല്ലാത്തിനും വളരെ അല അലങ്കാരിതമായ ഒരു സംഗതിയാണ് അപ്പം അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും പാ പാട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉൾപ്പെടുത്തുന്നത് അപ്പം ഞാനവിടെ ഇങ്ങനുള്ള സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ഞാൻ പാടുന്നതിന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ എനിക്കിനിയും ഇങ്ങനുള്ള സ്ഥലങ്ങളിൽ വീണ്ടും വീണ്ടും എനിക്ക് പാടണന്ന് വളരെ അതിയായ ആഗ്രഹമുണ്ട് ഞാൻ ഏറെ ഗാനത്തെ ഇഷ്ടപെടുന്നു നിർത്തുന്നു